ഈ വയനാട്ടിലെ ആൾക്കാർ ഏറ്റവും കൂടുതൽ നേരിടുന്ന കുറെ പ്രശ്നങ്ങൾ ഇവിടെ ആദിവാസികളായതുകൊണ്ട് അവർക്ക് പോഷകാഹാരക്കുറവുണ്ട് ജലം കിട്ടാൻ കുറച്ചു ബുദ്ധിമുട്ടുണ്ട് നേതാക്കളുടെ ഭാഗത്ത് വലിയ ഒരു ഇതൊന്നുമില്ല തിരിഞ്ഞു നോട്ടമൊന്നുമില്ല അവർക്ക് വോട്ടിൻ്റെ സമയം വന്നിട്ട് ഒന്നു സോപ്പിട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്തിട്ട് വോട്ടിനു വേണ്ടി മാത്രം ചെയ്യുന്ന ആൾക്കാരാണ് പകുതി ഭരണാധികാരികളും പിന്നെ എന്താ പറയുക വന്യജീവികളിൽ നിന്നും കുറേ എന്താ പറയുക അവരെ കൃഷി നാശവും അല്ലെങ്കിൽ എന്താ പറയുക അവരുടെ ബന്ധുക്കളെത്തന്നെ വന്യ ജീവികൾ ഇല്ലാണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് വയനാട്ടിൽ എന്നാലും നേതാക്കന്മാർക്കൊരു എന്താ പറയുക ഒരു തിരിഞ്ഞു നോട്ടം അവർക്കുവേണ്ട സഹായങ്ങളോ ഒന്നങ്ങനെ കൊടുക്കുന്നില്ല എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രം അന്നേരത്തൊന്ന് വന്നു നോക്കിയിട്ട് സമാധാനം പറഞ്ഞു പോവും എന്നല്ലാതെ പിന്നീടൊരു തിരിഞ്ഞു നോട്ടം അവരിലേക്ക് ഉണ്ടാവില്ല അതാണിപ്പോൾ വയനാട്ടിൽ ആൾക്കാർ കൂടുതൽ അനുഭവിക്കുന്ന അവസ്ഥ വെള്ളത്തിൻ്റെ പേരിലാണേലും വന്യമൃഗങ്ങളെ പേരിലായാലും ആഹാര പോഷകാഹാരത്തിൻ്റെ പേരിലാണെങ്കിലും അവരിപ്പോൾ കാട്ടിൽനിന്ന് കിട്ടുന്ന ഭക്ഷണങ്ങൾ കൊണ്ടാണ് അവർ ജീവിക്കുന്നത് അല്ലാണ്ട് സർക്കാരിൽ നിന്നും അവർക്കൊന്നും കിട്ടുന്നില്ല കിട്ടുന്നുമില്ല ഇവരെ കയ്യിലേക്ക് എത്തിപ്പെടുന്നില്ല ഒന്നും അതൊക്കെ എവിടെ പോകുന്നുണ്ടെന്നു അറിയില്ല എന്തെങ്കിലും സഹായം തരാമെന്ന് പറയും പക്ഷേ വാഗ്ദാനങ്ങൾ മാത്രം ആയിരിക്കും അതൊക്കെ